സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ വേർതിരിഞ്ഞു വന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷക്കാരും സംസ്കൃത ഭാഷ എല്ലാവരും കൂടി മലയാള ഭാഷയെ താഴ്ത്തിപ്പറയുന്ന രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാലഞ്ചു പേരുടെ മുൻപിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ വലിയ സംഭവം എന്നാണ് ആൾക്കാരുടെ വിചാരം ഇപ്പോഴുമുണ്ട് വയസ്സായ പ്രായം ചെന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെയുണ്ട് അവരൊക്കെ കട നടത്തി ജീവിക്കുന്നവരുമുണ്ട് അവരടുത്തുപോയി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ലല്ലോ അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നമാവുന്നത് കൂടുതൽ പേരും വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നു അതുപോലെത്തന്നെ ഇപ്പം വരുന്ന എല്ലാ കുട്ടികളെയും സ്കൂളിൽ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കുന്നത് അപ്പോൾത്തന്നെ കുട്ടികളൊക്കെ ഒരു അഞ്ച് ആറ് ക്ലാസിലേക്ക് എത്തുമ്പോഴത്തേക്ക് മലയാളം പറയാത്ത അവസ്ഥയാണ് വരുന്നത് മലയാളം ഓവർ അറിയാത്ത അവസ്ഥയാണ് വരുന്നത് മാതൃഭാഷ മറക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാതൃഭാഷയെ താഴ്ത്തരുത് എല്ലാ ഭാഷയും നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് എല്ലാ ഭാഷയും അവിടെത്തന്നെ ഉണ്ടാവണം ഇംഗ്ലീഷ് സംസ്കൃതം എല്ലാ ഭാഷയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോഴത് അപ്പോൾ അങ്ങനെ മലയാള ഭാഷയെ താഴ്ത്താൻ പാടുള്ളതല്ല